അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഒരു സഞ്ചാരി ഒരു വിനോദ സഞ്ചാരി വന്നാൽ എത്ര സമയമാണ് അല്ലെങ്കിൽ എത്ര രൂപയാണ് ചിലവാക്കെണ്ടി വരുന്നതെന്ന് ഇതിൽ പറയുന്നത് അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ പോവുന്നത് ആദ്യമായി പറയുകയാണങ്കിൽ വിനോദ സഞ്ചാരം അത് നല്ലൊരു കാര്യമാണ് നമ്മുടെ മനസ്സിനെ നല്ലൊരു കുളിരും നല്ലൊരു ആശ്വാസവും നൽകുന്ന നമ്മൾ ഏത് പ്രശ്നത്തിൽ പെട്ടിരിക്കുവാണെങ്കിലും നമുക്കൊരു സഞ്ചാരം വളരെ നല്ല ഉപകാരമുള്ളൊരു ഒരു കാര്യമാണ് ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരാം ഇപ്പം എൻ്റെ നാട് കേരളമാണ് അപ്പോൾ ഇവിടെ സഞ്ചരത്തിനായി ഇവിടെ ധാരാളം വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുണ്ട് ധാരാളമെന്നാൽ ധാരാളമുണ്ട് അപ്പോൾ അവിടെ വന്നാൽ നമുക്ക് പറയണമെങ്കിൽ ഓരോന്നിനും എൻ്റെ അടുത്തുള്ള നോക്കുകയാണെങ്കിൽ ബേക്കൽ ഫോട്ട് പിന്നെ റാണിപുരം ഇങ്ങനത്തെ കുറച്ച് പ്ലെയ്സാണ് സ്ഥലമാണ് എൻ്റെ അടുത്തുള്ളത് കുറച്ചുംകൂടി ദൂരം അങ്ങോട്ട് പോയാൽ നല്ല പാർക്ക് വാട്ടർ പാർക്കായ വിസ്മയ പോലത്തെ സ്ഥലം ഇതെല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്തുള്ള സ്ഥലത്തക്കെ വരുന്നെങ്കിൽ ചെറിയൊരു ചിലവാണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റാണി പുരമെന്ന പറഞ്ഞ സ്ഥലം സമയം എന്നാൽ ഒരു മൂന്ന് കിലോമീറ്റർ നടുക്കാനുണ്ട് മല കയറിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ത്രീ റ്റു ഫോർ മൂന്ന് അല്ലെങ്കിൽ നാല് മണിക്കൂർ എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ചിലവ് വെറും അൻപത് രൂപയാണ് പിന്നെ നമ്മുടെ യാത്രാ ചിലവുകൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ചിലവ് അപ്പോൾ നമുക്ക് ഉറപ്പിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇപ്പോൾ അടുത്ത് ഇവിടുന്ന് ബ് കർണാടക തമിഴ് നാട് അടുത്ത് വരുന്നതാണ് നിങ്ങൾ അതിന് അനിസരിച്ചുള്ള ചിലവ് നമുക്കുണ്ടാവും നമ്മൾ ദൂരത്തൂന്ന് വരുന്നതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ചിലവ് ഉണ്ടാവും അപ്പോൾ നാം എത്രത്തോളം ചിലവ് എന്നുള്ളത് നമുക്ക് അതിനനുസരിച്ചിട്ടേ പറയാൻ പറ്റുകയുള്ളു ഇപ്പം നമ്മൾ അടുത്തൂന്ന് വരുകയാണെങ്കിൽ നമുക്കേകദേശം ചെറിയൊരു ചിലവിൽ തന്നെ നമുക്ക് ചെറിയൊരു സമയം കൊണ്ടു തന്നെ സമയത്തിനെന്നാൽ വളരെ പ്രാധാന്യമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഒന്നിനും സമയം കിട്ടാത്ത ഒരു സമയത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ടു തന്നെ ചെറിയൊരു സമയം മാത്രമാണ് ഇതിന് നമുക്ക് ചിലവാക്കാൻ സാധിക്കുക കുറെ സമയം ചിലവാക്കിയാൽ ഇതും ഒരു നാശത്തിലേക്ക് പോകേണ്ടി വരും എന്തെന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം ഈ വരണമെങ്കിൽ നമുക്കിതിനുള്ളള്ള ഒരു വരുമാനം വേണം ആ വരുമാനം ആക്കണമെങ്കിൽ നമുക്ക് വേറൊരു ജോലിക്ക് പോയേ പറ്റു അപ്പോൾ അതിനു നമ്മൾ സ അതിനും നമ്മൾ സ സമയം കണ്ടെത്തേണ്ടി വരും അപ്പോൾ നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ കുറെ അധികവും പ്രകൃതിപരമായ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ചിലവ് വളരെ കുറവാണ് പക്ഷേ സമയം അധികം ആകേണ്ടി വരും കാരണം എന്നു വെച്ചാൽ കാണാൻ അത്ര സുന്ദരമായ ഒരു നാടും അത്ര നല്ല പ്രകൃതിയുമായതു കൊണ്ട് തന്നെ നമുക്ക് കുറെ സമയം ഇവിടെ ചിലവഴിക്കേണ്ടി വരും ചിലവഴിച്ച് പോകും അതാണ് സത്യാവസ്ഥ പിന്നെ പൈസ പറഞ്ഞതുപോലെ തന്നെ കുറെ ചിലവാവില്ല കാരണം അധികവും പ്രകൃതിയാണ് പ്രകൃതിക്ക് പൈസ വാങ്ങുന്ന കുറെ സ്ഥലങ്ങളുണ്ട് ഇപ്പം ഈ റാണീപുരം എന്നു പറഞ്ഞാൽ ഒരു പ്രകൃതിയാണ് പക്ഷേ അവർ പൈസ വാങ്ങുന്നു പക്ഷേ അത് വാങ്ങുന്നതെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള വൃത്തിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടീട്ടുള്ള അവർക്കൊരിതുണ്ട് അപ്പം അതുകൊണ്ടാണ് അവർ വാങ്ങുന്നത് പിന്നെ അധികവും നല്ല നല്ല സ്ഥലങ്ങളായതു കൊണ്ട് തന്നെ സമയത്തിനാണ് ഇവിടെ ചിലവ് അധികവും വരുന്നത് അല്ലാണ്ട് പണത്തിനല്ല പണത്തിന് വരുന്നതാണല്ലൊ നമ്മുടെ സഞ്ചാര ചിലവാണ് അതെന്തായാലും നാം വഹിക്കേണ്ടി വരും പിന്നെ യാത്ര ചെയ്യാൻ വളരെ സുലഭമായ ഒരു നാടാണ് നമ്മുടെ ഈ ഒരു ഞാൻ ജീവിക്കുന്ന ഈ ഒരു സ്ഥലം എന്നുള്ളത് അതുകൊണ്ട് തന്നെ സമയം എടുത്തു പോവും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ടു ദിവസം എന്ന് പറഞ്ഞു വന്നാൽ ഇവിടുത്തെ സൗന്ദര്യവും ഇവിടുത്തെ ബാക്കി എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നാലു ദിവസം നിന്ന് പോവും അതാണ് ഇവിടുത്തേത് കാരണം അവിടെയൊക്കെ കയറാനുള്ള പൈസ പോലത്തെ സംവിധാനങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ നിന്ന് പോവും ഇപ്പോൾ ഒരു വാട്ടർ പാർക്ക് ഒരു വെള്ളത്തിലുള്ള ഒരു പാർക്ക് പോലത്തെ സംവിധാനം അവിടെ ഇപ്പം കയറണമെങ്കിൽ ഏകദേശം എഴുന്നൂർ എണ്ണൂർ രൂപ ഉണ്ട് ആ പൈസ ചിലവാക്കിയിട്ട് ഒരാൾ പോയി പിറ്റേ പിറ്റേ ദിവസം അയാൾക്ക് പോകണമെങ്കിൽ അയാൾക്ക് അതെ ചെ പൈസ ചിലവാക്കണം പക്ഷേ ഒരു പ്രകൃതി ഒരു മരങ്ങൾ ഒരു മഞ്ഞുകൾ കാണാൻ പോകുന്നൊരുത്തന് ആ സ്ഥലത്ത് പോയി അത് കണ്ട് ആസ്വദിച്ച് എല്ലാം ആസ്വദിച്ച് അവന് പിറ്റേ ദിവസം ആ നാട്ടിൽ തന്നെ നിന്ന് അത് കാണണമെങ്കിൽ അവന് ചിലവില്ല കാരണം അവിടെ പോയി നിന്നാൽ മതി ആ പോകുന്ന യാത്ര അവൻ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ആ യാത്ര ചിലവുമില്ല അപ്പം അതാണ് ഇതുകൊണ്ടുള്ള മെയിന് ഉദ്ദേശം അതായത് ഫസ് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ സഞ്ചാരം ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അതുകൊണ്ട് തന്നെ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി സഞ്ചാരത്തെ മാറ്റുക കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ കുറെ ഭാഗമായി മാറ്റിയാൽ നമുക്കതിനുള്ള വരുമാനം കണ്ടെത്താൻ കൂടി സാധിക്കില്ല അതുകൊണ്ട് എല്ലാം നമ്മുടെ ജീവിതം മുടങ്ങി പോവും അതുകൊണ്ട് സഞ്ചാരം നമുക്ക് പറ്റുന്ന രീതിയിൽ നാം എല്ലാം ചെയ്യുക ഇപ്പോൾ എൻ്റടുത്ത് വന്നാൽ തന്നെ ഒരേകദേശം ഒരു മൂന്ന് നാലായിരം രൂപയ്ക്ക് ഒരാൾക്ക് ഈ നാട് ചു ചു നല്ല ഇതിൽ നമുക്ക് ചുറ്റാൻ പറ്റും കാരണം ഈ പൈസാന്നുള്ളത് അവനെ സഞ്ചാര പൈസ അടുത്തൂന്നു വരുകയാണെങ്കിൽ അവരെ സഞ്ചാര പൈസയും പിന്നെയുള്ള ബാക്കി താമസ സലത്തുള്ള പൈസയുമാണ് പിന്നെ നല്ല നല്ല സ്ഥലത്ത് ഇപ്പോൾ വയനാട് പോലത്തെ സ്ഥലത്താണെങ്കിൽ താമസ സ്ഥലത്ത് കുറച്ച് പൈസ അധികമുണ്ടാവും കാരണം അതുപോലത്തെ നല്ല നല്ല കാലാവസ്ഥകളും ആ ഒരു സ്ഥലത്തുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അതിനനുസരിച്ചുള്ള ഇത് കൊടുക്കേണ്ടി വരും വലിയ നിരക്കൊന്നും ഉണ്ടാവില്ല ചെറിയ നിരക്ക് കൊണ്ട് കൊടുക്കേണ്ടി വരും അവിടെ അടുത്തൂന്നു വരുവാണെങ്കിൽ ഇത്ര ഇത് ഉണ്ടാവും സമയം എന്നു വെച്ചാൽ ഒരു അഞ്ച് ദിവസത്തെയും ആറ് ദിവസം സമയത്ത് വന്നാൽ നമുക്ക് വയനാട് പോലുള്ള ഇടുക്കി പോലുള്ള മൂന്നാറ് പോലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും കാസർകോഡ് എൻ്റെ നാടിലാണെങ്കിൽ റാണീപുരം അതുപോലുള്ള കുറെ നല്ല നല്ല സ്ഥലങ്ങൾ അവർക്ക് നമുക്ക് കാണാൻ സാധിക്കും അത് തന്നെയാണ് ഇതുകൊണ്ടുള്ള ഉപ ഉപകാരവും യാത്ര എന്നുള്ളത് ഒരു മനുഷ്യനെ ഒരിക്കലും മുടിപ്പിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുകയാണെങ്കിൽ അഞ്ച് ആറ് ദിവസം ഞാൻ പറഞ്ഞതുപോലെ അഞ്ച് ആറ് ദിവസം ചിലവഴിക്കേണ്ടി വരും യാത്ര ദിവസത്തിൽ വന്നാൽ ഏകദേശം അഞ്ച് ആറ് ദിവസം ചിലവഴിച്ചാൽ തന്നെ നമ്മൾ പിന്നെയും അവിടെ നിൽക്കാനാണ് ചാൻസ്സ് അപ്പം അതുകൂടി നമ്മൾ നോക്കണം കാരണം കാലാവസ്ഥ അത്രയും മനോഹരമാണ് എൻ്റെ നാട്ടിലുള്ളത് അപ്പോൾ ഇത് തന്നെയാണ് പറയാനുള്ളത് ഏകദേശം അടുത്തൂന്ന് വരുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈയൊരു പൈസയും ഈയൊരു സമയവും നമുക്ക് ചിലവാക്കേണ്ടി വരും